നിങ്ങളുടെ പുതിയ ഗ്യാസ് ബുക്കിങ്ങ് രീതി നല്ലതാണ് കാരണം അധികം പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും പെട്ടെന്നൊരു ഫോൺ കോളിൽക്കൂടി ഓട്ടോമാറ്റിക്കൽ ബുക്കിങ്ങ് സിസ്റ്റത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞാൻ സംതൃപ്തിയാണ് നേരത്തത്തേ കണക്ക് ഫുൾ നമ്പറൊന്നും അടിച്ചു കൊടുക്കാതെ ഓട്ടോമാറ്റിക്കലി ആ നമ്പറെല്ലാം റീഡ് ചെയ്ത് നമ്പറുകൾ മാത്രം ഒരു സ്പെസിഫിക് ഒരു ഒറ്റ നമ്പർ മാത്രം ഞെക്കിക്കൊണ്ട് അത് ബുക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതു കൊള്ളാം കുറച്ചും കൂടി അപ്ഡേഷൻ ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു ക്ലിക്കിൽ മാത്രം കൊടുക്കുമ്പോൾത്തന്നെ ഗ്യാസ് കിട്ടുക എന്നുള്ളത് കുറച്ചുംകൂടി നല്ല രീതിയായിരിക്കും കാരണം ഓൺലൈനിൽ ഫോൺ ഗ്യാസുമായിട്ടു മാത്രം നമ്പറുമായിട്ടു മാത്രം ബന്ധപ്പെടുത്തി അതിൻ്റെ ഒരു ആപ്പുപോലെ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി യൂസ് ചെയ്യാനായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും